കോഴി വളർത്തുമ്പോൾ അവർക്ക് രോഗം പടരുന്നത് തടയാൻ വേണ്ടി ഒത്തിരിയേറെ മാർഗ്ഗങ്ങളുണ്ട് നമ്മളൊരു കോഴിക്കുഞ്ഞിനെ ഒരു മൂന്നാഴ്ച പ്രായം വരെ മൂന്നാഴ്ച പ്രായം വരെ നമ്മളാദ്യം അവർക്ക് ലൈറ്റ് കൊടുക്കുന്നു അതായതവർക്കൊരു ചൂട് കൊടുത്തവരെ ആദ്യം സംരക്ഷിക്കുന്നു ഈ ചൂടിൽനിന്ന് നമ്മൾ പതിയെ പതിയാണ് അവരാ ചൂടാദ്യം ഫുൾ ടൈം ഫുൾ അവര് ജനിക്കുന്ന കാലം മുതൽ മൂന്നാഴ്ച കാലം വരെ അവരെ ചൂട് ലൈറ്റ് കൊടുത്ത് ചൂടിനകത്തിടുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളതൊരു നേരമാക്കുന്നു രണ്ട് നേരമാക്കുന്നിങ്ങനെ ചൂടിൽ നിന്നും മാറ്റിയാണ് നമ്മടന്തരീക്ഷത്തിലേക്കവരെ കൊണ്ടുവരുന്നത് ഈ സാഹചര്യത്തിലാദ്യം അവർക്ക് മൂന്നാഴ്ചയില് നമ്മള് കൊടുക്കുന്ന ഭക്ഷണത്തെ അനുസരിച്ച് ഈ ഭക്ഷണം പോലുമൊരു കൺട്രോൾ ലിമിറ്റിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് അതായത് അവർക്കാദ്യം നമ്മൾ വിര മരുന്ന് കൊടുക്കാറ്ണ്ട് വിര മരുന്ന് കൊടുക്കാറുണ്ട് വിര മരുന്ന് കൊടുത്തതിനുശേഷം നമ്മളവർക്കാദ്യമായിട്ട് സ്റ്റാർട്ട് കൊടുക്കുന്നു സ്റ്റാർട്ടര് കൊടുക്കുന്നു സ്റ്റാർട്ടര് കൊടുത്ത് ഭക്ഷണം കൊടുക്കുന്നു അതിനിടയ്ക്ക് നമ്മള് പെട്ടെന്നുള്ള രോഗങ്ങളിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് മഞ്ഞള് ചെറു ചൂട് വെള്ളത്തില് ഇളം ചൂടുള്ള വെള്ളത്തിൽ നിന്ന് മഞ്ഞളിട്ട് നമ്മള് ഇടയ്ക്ക് മഞ്ഞ വെള്ളം അവർക്ക് കൊടുക്കാറുണ്ട് ഇത് മറ്റുള്ള രോഗങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ളൊരു പ്രതിരോധ ശേഷിക്കേറ്റവും നല്ലതാണ് മഞ്ഞള്പ്പൊടിയെന്ന് പറയുന്നത് അതിളം ചൂടു വെള്ളത്തിൽ കൊടുത്ത് കോഴികള് കഴിക്കുമ്പോൾ പെട്ടെന്നുള്ള രോഗം പെട്ടെന്ന് വരുന്നൊരു പനിയൊക്കെ തടയാനായിട്ടൊരുപരിധി വരെ നമുക്കതിന് സാധിക്കാറുണ്ട് അതുപോലെ തന്നെ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും അവർക്ക് വിരയിളക്കണം ഈ വിരയിളക്കുന്നതിന്നതനുസരിച്ചിട്ട് അവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കൊഴിവാകുന്നതും കോഴികൾക്ക് പെട്ടെന്നാഹാരം കഴിക്കുമ്പോള് ഗ്യാസ് കയറിയിട്ടവരിങ്ങനെ ഒരു പാട് വളരെ രീതിയില് അവരുടെ വയറിളകുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മള്ക്ക് തടയുവാനായിട്ട് സാധിക്കും അതുകൂടാതെ തന്നെ നമ്മള് കോഴിയെ നിലത്തിറക്കി വിടണം അന്തരീക്ഷവുമായിട്ടിണക്കി വേണം വളർത്താൻ അവര് പുല്ലുകൾ കൊത്തി തിന്നുന്നത് വഴിയും പുല്ലുകളിലെ പുഴുക്കളും എല്ലാം കൊത്തി തിന്നുന്നതു വഴിയും ഒത്തിരിയേറെ വയറിനുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം പരു ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്ന അവർക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തെ അനുസരിച്ചിട്ടായിരിക്കും അവർക്കുണ്ടാകുന്ന രോഗങ്ങളും കുറയുന്നത് അവർക്ക് നമ്മളൊരു മൂന്ന് മാസക്കാലത്തോളം ആദ്യത്തെ മൂന്ന് മാസത്തെക്കോളം സ്റ്റാർട്ടറാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് ശേഷം മൂന്ന് മാസത്തോളം കാലത്തോളം നമുക്കവർക്ക് ലെയര് കൊടുക്കാൻ സാധിക്കും ഈ ലെയര് കൊടുത്തതിന് ശേഷം മുട്ടപ്പരുവമെത്തുന്ന ഒരാറു മാസം കഴിയുന്നിടത്തേക്കവര് മുട്ടപ്പരുവത്തിലേക്കെത്തും അതിന് ശേഷമവർക്ക് മുട്ടത്തീറ്റ കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ തേങ്ങാപ്പിണ്ണാക്ക് നമുക്ക് കിട്ടാവുന്ന തേങ്ങാ പിണ്ണാക്കുകളെല്ലാം കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ന നമ്മുടെ ഇതിന് നമ്മുടെ കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ കൊത്തിയരിഞ്ഞ് അവർക്ക് തിന്നാൻ കൊടുക്കുന്നതും അതുപോലെ തന്നെ പിണ്ടി ചുണ്ട് വാഴച്ചുണ്ടക്കെ കൊത്തിയരിഞ്ഞ് കോഴികൾക്ക് തിന്നാൻ കൊടുക്കുന്നതേറ്റവും നല്ലതാണപ്പവരുടെ വയറിലുള്ള കല്ലിൻ്റെയൊക്കെ അംശം അവര് കൊത്തി തിന്നുന്നത് വഴി പുഴുക്കളൊക്കെ തിന്നുമ്പോള് കല്ലിൻ്റെയൊക്കെ അംശങ്ങളുണ്ടങ്കിൽ ഇതെല്ലാം വയറിൽ നിന്ന് പോവുകയും കൊക്കോ പുഴു ഉണ്ടാകുന്നത് തടയുകയും ഒരുപരിധിവരെ തടയുന്നതും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും ഒരു പെട്ടെന്ന് നമ്മള്ക്ക് നമ്മള് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോഴെപ്പോഴും കോഴികള്ക്ക് വിരയിളക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുകൊണ്ടുതന്നെ അവർക്ക് വിര മരുന്നു നമ്മൾ മൂന്ന് മാസം കൂടുമ്പോൾ കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ കോഴിയെ തുറസ്സായ സ്ഥലത്ത് അവർക്ക് അവർക്ക് ചിറകടിച്ച് പറന്നുനടന്ന് കളിക്കാൻ പറ്റുന്ന രീതിയിലവര് തുറന്നുവിടേണ്ടതാണ് കോഴിക്ക് അസുഖം വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മള് മൃഗാശുപത്രീലെ മൃഗഡോക്റ്ററെയാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്നറിയിക്കുന്നത് ഒരു ഡോക്ടർ വന്ന് കഴിഞ്ഞാല് ഡോക്ടറോട് നമ്മള് പ്ര പ്രശ് നമുക്ക് കോഴിക്ക് ഒരസുഖം വന്നുകഴിഞ്ഞാല് പെട്ടെന്നു തന്നെ നമ്മള് മൃഗാശുപത്രിയില് പോയിട്ട് ഡോക്ടറെ ഇങ്ങനെയാണെൻ്റെ കോഴിക്ക് ഇന്നതാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവര് മരുന്നുകൾ തരികയും അത് നമ്മള് കൃത്യമായിട്ട് കൊടുക്കുകയും വഴി അതുപോലെ തന്നെ നമ്മള് കോഴികളെ കൂടുതലായിട്ട് സ്നേഹിച്ചവരോട് വർത്തമാനം പറഞ്ഞ് കഴിഞ്ഞാലവര് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും അതനുസരിച്ചിട്ട് നമ്മള്ക്ക് മാനസികമായിട്ടെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉള്ള സമയത്താണങ്കില് കോഴികളുടെ വർത്തമാനം കേള്ക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിനൊരു കുളിർമ്മ തന്നെയാണ് കോഴി എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ജീവിയാണ് നമുക്ക് വീട്ടില് വളര്ത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ജീവികളിലൊന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടാണേലും നമ്മുടെ വീട്ടിലുള്ളവരുമായിട്ടാണേലും അവര് കൂടുതല് ഇണങ്ങുകയും അവര് കൂടുതല് നമ്മളുമായിട്ട് അറ്റാച്ച്മെൻറ്റാകും നമ്മളുമായിട്ടവര് കൂടുതലിണങ്ങും അവരൊത്തിരിയേറെ വർത്തമാനങ്ങള് തിരിച്ചു പറയുകയും എടുക്കുകയുമൊക്കെ ചെയ്യും കോഴികളെ നമ്മള് നല്ല രീതിയില് ഒരു നല്ല രീതിയില് കുഞ്ഞു കോഴികളെ മേടിച്ചവരെ വളര്ത്തിക്കൊണ്ട് വരുന്നതനുസരിച്ചിട്ട് മുട്ടപ്പ്രായമാകുന്നതു വരെ ഒന്ന് രണ്ട് വർഷം വരെ മുട്ടയിടുന്നത് ആ മുട്ടയിടല്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളവവരെ കോഴിയെ കൊല്ലാനായിട്ട് കശാപ്പുശാലയിലേക്ക് നേരത്തത് പറഞ്ഞത് പോലെ കശാപ്പ് ശാലയിലേക്ക് നമ്മള് കൊല്ലുവാനായിട്ടും കൊടുക്കുന്നുണ്ട് കൊന്നും കൊടുക്കുന്നുണ്ടപ്പോള് കോഴി എന്ന് പറയുന്നത് വളർത്തുന്നത് തടയുവാനായിട്ട് കോഴിയുടെ അസുഖങ്ങൾ രോഗം പടരുന്നതും പനികള് വരുന്നതൊക്കെ തടയാനായിട്ട് അവർക്ക് മൂന്ന് മാസം കൂടുമ്പോൾ വിരയിളക്കണം ഇടയ്ക്കിളം ചൂടുള്ള ഇളം ചൂടുള്ള വെള്ളത്തില് മഞ്ഞപ്പൊടി കലക്കി നല്ല മഞ്ഞൾപ്പൊടി കെമിക്കലൊന്നുമില്ലാത്ത മഞ്ഞപ്പൊടി കലക്കി അവരെ കുടിപ്പിക്കുന്നതും അവർക്ക് ഇടയ്ക്ക് ചൂട് വെള്ളം കൊടുക്കുന്നതും ചൂട് ചൂട് ചെറു ഇളം ചൂടുള്ള ആഹാരങ്ങള് കൊടുത്ത് പഠിപ്പിക്കുന്നതും ഏറ്റവും നല്ലത് തന്നെയാണ് അവരുടെ അസുഖങ്ങളിൽ നിന്നവർക്ക് മാറുവാനായിട്ട് അസുഖങ്ങൾ പെട്ടെന്ന് വരുന്നതും പെട്ടെന്ന് വരുന്ന രോഗങ്ങളെ തടയുവാനായിട്ടൊരു പരിധിവരെ ഇതെല്ലാം നമ്മളെ സഹായിക്കാറുണ്ട്